ചേട്ടാ നമസ്കാരം ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് ഫുഡിൻ്റെ ഓർഡറ് തന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക് അത് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഓർഡറ് എടുക്കാൻ നേരത്ത് അവിടെ ആൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അവർ ഇപ്പോൾ ഗ്രോ പ്രോഗ്രാം ക്യാൻസൽ ആയി പോയി അപ്പോൾ അതിൻ്റെ റീഫണ്ടും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വരെ ആയിട്ടും അത് കിട്ടിയില്ല ഏ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ ആ റീഫണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് റെഡിയാക്കാനുള്ളൊരു